ആ എനിക്ക് ആടും ജീവിതവുള്ള ബുക്കില്ലേ അതാണ് വേണ്ടത്

ആണോ ആ കുഴപ്പമില്ല അപ്പം എത്ര ദിവസം കഴിയുമ്പോൾ കിട്ടും നമുക്കാ ബുക്കിനി ആ ആ ആ നമുക്ക് പിള്ളേർക്ക് കു കുതി എഴുതാൻ വേണ്ടിയൊക്കെയായിരുന്നു അല്ല ഇപ്പോൾ കൊണ്ടുപോയവർ ഇപ്പം അത്യാവശ്യം വായിക്കട്ട് അവർക്കിപ്പൊള്ളൊരു അതിനെക്കുറിച്ച് എഴുതാനൊക്കെ ഉള്ളവരാണെങ്കിൽ ആണെങ്കിൽ പിന്നെ ചെറുപ്പം ചെറുപ്പക്കാരാണോ കൊണ്ടുപോയേക്കുന്നത് ആ ആ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ പിന്നെ കൊ നമുക്കാ നമ്മളും കുഞ്ഞി കു കുട്ടികളുള്ളതല്ലേ അപ്പോൾ പിന്നെ അവർക്ക് എഴുതാനും പഠിക്കാനും കാണുവല്ലോ അപ്പം എത്ര ദിവസം കഴിയുമ്പോൾ കിട്ടും നമുക്കാ ബുക്കങ്ങ്

പിന്നത്തെ ശനിയാഴ്ചയല്ലേ കിട്ടുവല്ലേ ആ ഹാ ആ കുഴപ്പമില്ല അപ്പം അപ്പമത് കഴിയുമ്പോൾ എനിക്കാ ബുക്ക് അങ്ങ് തരണേ വേറാർക്കും കൊടുക്കരുതേ ആ വരാം വരാം വരാം പറ്റത്തില്ല ആ കുഴപ്പമില്ല അപ്പം നിങ്ങളുടെ ബുക്കവിടെ വ വരുന്ന സമയത്ത് ഞങ്ങളുടെ നമ്പറുണ്ടല്ലോ അവിടെ അപ്പോൾ ആ നമ്പറിലേക്കൊന്ന് ഞങ്ങളെയൊന്ന് വിളിച്ചാൽ മതി അപ്പം ഞങ്ങളൊറപ്പായിട്ടും അവിടെ വന്നേക്കാം ആ സമയം നോക്കിയങ്ങ് വന്നേക്കാം അങ്ങ് ആ ഉണ്ട് ഉണ്ട് മെമ്പർഷിപ്പെടുത്തിട്ടുണ്ട് അവിടെ ആ ഉണ്ട് ആ നമുക്ക് മാക്സിമം ഓ ഒരാഴ്ച മതി പിന്നെ നമ്മുടേത് കൊച്ചു പിള്ളാരെ മതിയല്ലോ അപ്പം പിന്നെ അത്യാവശ്യമെന്ന് ജസ്റ്റൊന്നവരുടെ ജീവ ചരിത്രമൊന്ന് എഴുതാൻ വേണ്ടി മാത്രമാണ് അപ്പമത് നമുക്കോടിച്ചിട്ട് വായിച്ചിട്ടങ്ങ് എഴുതിയാൽ മതി അങ്ങ് ഒത്തിരിയൊന്നും വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ മാത്രം മതിയങ്ങ് ആ അപ്പം മാക്സിമം എന്തായാലും ഒരാഴ്ച തരിക അതു കഴിഞ്ഞിട്ട് വല്ല അത്യാവശ്യമാണ് പിന്നേം പറയുവാണെങ്കിൽ നമ്മൾ വന്ന് പിന്നെ നമ്മളതിനനുസരിച്ചങ്ങ് എടുത്തോളാം അപ്പം ഞങ്ങൾ ഇങ്ങനെ വേണമെന്ന് പറയുവാണെങ്കിലെ ഒരു ദിവസം മുൻപേ വരെ രണ്ടു ദിവസം മുന്നേ വിളിച്ച് പറയാം വിളിച്ച് പറഞ്ഞിട്ടപ്പം നിങ്ങളങ്ങ് എടുത്തങ്ങ് വച്ചാൽ മതിയല്ലോ അങ്ങ് ആ ആ ഇതും വേണം സുകുമാരി ബഷീറിൻ്റെയൊക്കെ ബുക്കുണ്ടോ ആ അപ്പം ആ അപ്പം കുഴപ്പമില്ല അങ്ങനാണെങ്കിൽ നമുക്ക് രണ്ട് ബൂക്കൂടെ ഒന്നിച്ചങ്ങ് വരാം നമക്കിത്രേം ദൂരത്ത് നമുക്ക് വരവ് പാടല്ലേ അപ്പം നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുവാണെങ്കിൽ എടുത്തു വെച്ചാൽ അപ്പോൾ ആരെങ്കിലും അത് കൊണ്ട് പോയാൽ നമുക്ക് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് തരണം എന്നാൽ വ വകുപ്പിലേ കൊടുക്കാവുള്ളൂ നമ്മൾ വരുമ്പോൾ നമുക്ക് രണ്ട് ബൂക്കൂടെ ഒന്നിച്ചിങ്ങ് കൊണ്ട് വരാം ആ ബാല്യകാല സഖി മതിയെന്നാൽ ആ എടുത്തു വച്ചാൽ മതി അപ്പം നമ്പറുണ്ടല്ലോ അപ്പം വിളിച്ചു പറഞ്ഞാൽ മതി അപ്പമതനുസരിച്ച് ഞാൻ വന്നങ്ങ് എടുത്തോളാം അങ്ങ് ആ ശരിയെന്നാൽ